സാങ്കേതികവിദ്യ വളർന്നതോടുകൂടി നമ്മുടെ മനുഷ്യരുടെ വിനോദ വിനോദവും മാറിയിരിക്കുന്നു അതായത് ഇപ്പോഴത്തെക്കാലത്ത് നമ്മൾ സാങ്കേതിക വിദ്യവെച്ച് ഫോൺ ഉപയോഗിക്കുന്നു പാട്ടു കേൾക്കുന്നു ഓരോരോ വീഡിയോകൾ കാണുന്നു സിനിമ കാണുന്നു എന്തൊക്കെ അതായത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു യുവാവ് അല്ലെങ്കിൽ ആ ആരെങ്കിലും ആവട്ടെ അവരുടെ ഒരു വിനോദം ഇപ്പോൾ മൊബൈൽ ഫോണുകളാണ് മൊബൈൽ ഫോണിൽ കാണുമ്പോൾ പല തരത്തിലുള്ള കാര്യങ്ങൾ അവർ കാണുന്നു അവരുടെ അവരുടെ ശ്രദ്ധാകേന്ദ്രം ഫോണിലേക്ക് മാറിയിരിക്കുന്നു പണ്ടത്തെക്കാലത്ത് സാങ്കേതിക വിദ്യകൾ വളർന്നു അതായത് തുടക്കത്തിൽ വിനോദങ്ങൾ എന്നു പറഞ്ഞാൽ കുട്ടികൾ കുട്ടികൾ കുട്ടികൾ ഒന്നിച്ചു കളിക്കുക പുഴയിൽ നീന്തുക സൈക്കിള് സവാരി നടത്തുക അങ്ങനെയുള്ള വിനോദങ്ങളൊക്കെ ആയിരുന്നു പണ്ടത്തെക്കാലത്ത് പക്ഷേ ഇപ്പോഴത്തേക്ക് ഒരു അതായത് തലമുറകൾ മാറുമ്പോൾ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ മാറുമ്പോൾ നമ്മുടെ കാര്യം നമ്മുടെ വിനോദങ്ങൾ ആ അതിനനുസരിച്ച് മാറുന്നു വിനോദങ്ങൾ മാറുമ്പോൾ മനുഷ്യനെ സാങ്കേതിക വിദ്യകൾ മടിയനാക്കും പണ്ടത്തെക്കാലത്ത് സാങ്കേതിക വിദ്യകൾ വളർന്ന് അതായത് സാങ്കേതിക വിദ്യകളുടെ തുടക്കത്തിൽ വിനോദങ്ങൾ ഉയർന്ന് പുറത്ത് അതായത് വീടിനു പുറത്തുള്ള വിനോദം അതായത് കായികപരമായുള്ള വിനോദങ്ങളൊക്കെ മുൻപിട്ട് നിന്നതുകൂടി തന്നെ അന്നുണ്ടായിരുന്നു മനുഷ്യർ ശക്തരും ശക്തരും അസുഖരഹിതമായ യുവാക്കളുമായിരുന്നു തലമുറപോലുള്ള തലമുറ പിന്നീട് വന്നിട്ടില്ല പിന്നീട് പിന്നെ സാങ്കേതിക വിദ്യകൾ അത് ഫോണുകളിൽ ഉള്ള കുട്ടികളെപ്പോഴും വളഞ്ഞു കുത്തി ഫോണുകളിൽ തന്നെ നോക്കിയിരിക്കുന്നു ആ അങ്ങനെ ആ ആ ആ അങ്ങനെ ഇരിക്കുന്നതുകൂടി തന്നെ വിനോദങ്ങളും ഓരോ കുട്ടികളുടെ വിനോദത്തോടുള്ള രുചികളും തന്നെ മാറിയിരിക്കുന്നു പല തരത്തിലുള്ള വിനോദങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൂടുതലും എന്നുവെച്ചാൽ ഗെയിമ് അതായത് ഗെയിമുകളിൽ അല്ലെങ്കിൽ ഫോണുകളിൽ ആണ് അവരുടെ വിനോദം അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പുറംലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ സ്വന്തം വീട്ടുകാരുമായിട്ടൊരു ബന്ധവുമില്ലാതെ യുവാക്കളൊക്കെ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു വളരെ വളരെ വേറിട്ട ഒരു കാര്യമാണിത് പണ്ടത്തേക്കാൾ പണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവരും ഇതുതന്നെ എല്ലാവരും ഫോൺ ഫോണൊന്നും ഇല്ലാണ്ട് എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി കളികൾ കായികപരമായി കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വളരെ നല്ലൊരു കാര്യമായിരുന്നു പിന്നീട് ഇതങ്ങോട്ട് മാറി മറിഞ്ഞും എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ നമ്മളും നമ്മളും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരിതു വെച്ചാണ് അതായത് നമുക്ക് വേറെയൊന്നും ചെയ്യാനില്ല കാരണം നമ്മളെമാതിരി ആ വലയത്തിൽ ഏർപ്പെട്ടുപോയി ഇതിൽ ഇത് ഇത് ഇതിൽ ഇപ്പോൾ ഇതിനെ പുറന്തള്ളുക അതായത് പണ്ടത്തെ ആ ഒരു സാങ്കേതിക വിദ്യകൾ കുറവുള്ള ഇതിൽ നമ്മൾ ആ പണ്ടത്തെ ഒരിതു വെച്ച് നമ്മൾ നിൽക്കുക എന്നതാണ് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്